ഹലോ ആ സാർ പച്ചക്കറി പീടിക അല്ലേ ആ എന്തൊക്കെ ഉണ്ട് കുറച്ച് പച്ചക്കറി വേണമായിരുന്നു അപ്പോൾ കാരറ്റ് ബീറ്റ്റൂട്ട് ഇത് ഇതെല്ലാം വേണം എങ്ങനെയാണ് ഓരോ പച്ചക്കറി റേറ്റ് വരുന്നത് ആ അല്ലേ തക്കാളിക്ക് എത്രയാണ് റേറ്റ് വരുന്നത് വെണ്ടയ്ക്ക തേങ്ങ ആ തേങ്ങക്കോ തേങ്ങക്ക് റേറ്റ് കൂടുതലുണ്ടോ

ആ നമ്മൾക്ക് കുറച്ച് കുറേ കാര്യങ്ങൾ വേണം ബീറ്റ്റൂട്ട് അങ്ങനെ മറ്റേ ഇഷ്ടം പോലെ വേണം മുള്ള് വീട്ടാവശ്യത്തിനാണ് വീട്ടാവശ്യത്തിനാണ് എല്ലാം വീട്ടാവശ്യത്തിനാണ് തിരന്തൻ തന്നേ തിരന്തൻ താ അപ്പോൾ ഇപ്പോൾ മറ്റേ റേറ്റ് എങ്ങനെ കൂടിയിട്ടുണ്ടോ കുറച്ചൊരു എനിക്ക് എത്രയാണ് ഇപ്പോൾ തക്കാളിക്ക് ഏകദേശം അതെയോ തക്കാളിക്ക് എങ്ങനെയാണ് ആ അപ്പോൾ കഴിഞ്ഞ ആഴ്ച വാങ്ങുമ്പോൾ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് ഉർപ്യ ഉണ്ടായിട്ടുള്ളൂ അതെയോ കൂടുതലോ കൊറച്ചേരോ നമ്മൾ സ്ഥിരം വരുന്നത് കൊണ്ട് നമ്മൾക്ക് ഒരു നാൽപ്പത്തി അഞ്ചിന് കിട്ടൂലേ അതെ അല്ലേ കുറച്ച് കൂടുതൽ വേണ്ടി വരും ഇപ്പോൾ ആ നമ്മൾക്കും കൂടുതൽ എടുക്കാം അതായത് വേറെ ആവശ്യത്തിനും ഉണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യാം അല്ലേ ആ ആ

വേറെ ഇത് നമ്മൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ ഇത് ആ അതുണ്ട് അല്ലേ ഇപ്പോൾ എത്തി എത്തിച്ചേരും അല്ലേ അതെല്ലം ഉണ്ടല്ലേ ആ ഓ പിന്നെ എന്താപ്പാ പിന്നെ ഈനെല്ലാം എങ്ങനെ പൈസ വരുന്നത് ഇപ്പോൾ ഫ്രൂട്ട്സുണ്ടാ അവിടെ പച്ചക്കറി മാത്രമേ ഉള്ളൂ ഫ്രൂട്ട്സും കാര്യങ്ങളും ഉണ്ടോ

ആണല്ലേ ആ പിന്നെ കാപ്സിക്കം എല്ലാം ഉണ്ടാവൂലേ ആ ഓക്കെ ഓക്കെ ചെയ്യാം അല്ലേ ആ ഓക്കെ ഞാൻ വരാം അങ്ങോട്ടേക്ക്